ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിന് ഇന്ന ഈ മതം എന്നോ ജാതിന്നോ അങ്ങനെയൊന്നും നോക്കാണ്ട് എല്ലാവരും പങ്കെടുക്കും ഓണപരിപാടി ഒന്നിങ്കിൽ ഓണത്തിൻ്റെ തലേ ദിവസം ഉണ്ടാകും അല്ലെങ്കിൽ ഓണം കഴിഞ്ഞാലാണ് ഈ പരിപാടി നടക്കുക ഓണപരിപാടി എന്നുള്ള പേരിലാന്ന് ഇത് നടത്തുക ഇതിൽ എല്ലാ മതത്തിലും മുസ്ലിങ്ങളായാലും ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ക്രിസ്താനികൾ അധികമില്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും എന്നുള്ളത് രണ്ട് ആൾക്കാരും എല്ലാം പരിപാടിയിലും പങ്കെടുക്കും മത്സരിക്കുകയും പ്രൈസ് വാങ്ങുകയും എല്ലാം ചെയ്യും നല്ല സഹകരണമുള്ള ഒരു ഗ്രാമപ്രദേശാന്ന് ഞമ്മളത് അതുപോലെ തന്നെ മുസ്ലിങ്ങൾ നോമ്പുതുറ അത് അത് നമ്മൾ നമ്മൾ കൂടുതൽ ഉള്ളത് ഹിന്ദുക്കളാണ് ഈ ഭാഗത്ത് അപ്പം ഇവർ തന്നെ ഏറ്റെടുത്ത് അത് നല്ല നല്ലൊരു പരിപാടിയായിട്ട് നമ്മൾ ഈ നോമ്പുതുറ കൊണ്ടാടും ഇവർ കുറെ ഐറ്റംസ് കൊണ്ടു വരും ഭക്ഷണം ഉണ്ടാക്കും കുറെ ആള് അത് സ്പോൺസർ ചെയ്ത് അവിടുന്ന് ഉണ്ടാക്കും ഇവരും മുസ്ലിങ്ങൾ നോമ്പുതുറക്കാനായിട്ട് വരുന്നത് തന്നെ ഈ നോമ്പുതൊറ പരിപാടിയിലാണ് ഇപ്പം ഒരു മൂന്ന് നാല് അഞ്ച് വർഷമായിട്ട് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് സ്ഥിരം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ നോമ്പുതുറ മൂന്ന് അഞ്ച് കൊല്ലമായിട്ടുള്ളതാന്ന് അപ്പം ഇവർ വന്നിട്ട് ഇവർ നോമ്പ് തുറക്കുന്ന ആ ടൈമിലാന്ന് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക നോമ്പുതൊറക്കാനുള്ള ഒരുക്കത്തിലാന്ന് അവരിക്ക് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആക്കി കൊടുക്കും അതിന് ശേഷം നോമ്പുതൊറക്ക തൊറക്കുന്നത് ഈ പരിപാടിയിലൂടെയാണ് എല്ലാം വളരെ നല്ലൊരു സഹകരണമാന്ന് ഞമ്മള നാട്ടിലുള്ള ആൾക്കാർക്കുള്ളൊരു ഓണപരുപാടിയിലായാലും രാവിലെ ഞമ്മൾ പോകുന്ന പോലെ തന്നെ ഇവരും വരും നമ്മളുടെ കൂടെ പു പൂവിടു പൂവിടുവൊന്നുമില്ല പൂവിടുക എന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യൂല പക്ഷേൽ ഈ ഓണപരിപാടി പിന്നെ ഈ ക്ലബ് വാർഷികങ്ങൾ അതുപോലെ തന്നെ ഈ ചതയ പരിപാടികൾ ഇങ്ങനെയുള്ള പരിപാടികളിൽ എല്ലാം നമ്മൾ മതപരമായ ഒരു അകലത്തിലൊന്നല്ല എല്ലാ ജാതിയിലുള്ള ആൾക്കാരും പങ്കെടുക്കും